ഹലോ അതേല്ലോ ഓഹ് അ ആ സ്വരം ഒക്കെ കേട്ടിട്ട് ഒത്തിരി നാളായല്ലോ ഇത് ലൗലി മോൾ തന്നെയാണോ സംസാരിക്കുന്നത് ആഹ് യു ക്കേക്ക് പോയി അ അ യു ക്കേക്ക് പോയിട്ട് എന്നു വന്നു അതിരമ്പുഴ മതിയോ അതിരമ്പുഴ മതിയോ അതിരമ്പുഴയിൽ

ആ എന്നാൽ പിന്നെ യൂണിവേഴ്സിറ്റി അമ്മഞ്ചേരി ആ ഭാഗം എടുക്കാം ആ സ്ഥലത്തിനവിടെ അഞ്ചു ലക്ഷം ആറു ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയൊക്കെ വരും സെൻറ്റിനൊക്കെ ആ യൂണിവേഴ്സിറ്റി സൈഡല്ലേ അവിടെ നല്ല വിലയുണ്ട് ആ ആ എന്നാ വിലയ്ക്കാകും ആ എല്ലാ സൗകര്യമുണ്ട് വഴിയുണ്ട് വണ്ടി വണ്ടി കയറുന്നിടമാണ് കിണർ എല്ലാമുണ്ട് പൈപ്പ് എല്ലാം ഇത് സൗകര്യമുള്ള സ്ഥലമാണേ ആ ആ സ്ഥലത്തിന് ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയൊക്കെ വരും ആ ആ ഓ കുറയുമോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം വന്ന് നിങ്ങൾ കാണുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നറിയാം അങ്ങനെ കുറക്കാമെന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ് ആ നമുക്ക് മരങ്ങളൊക്കെ ഉള്ളതാണേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് എല്ലാമുണ്ട് തെങ്ങുണ്ട് പ്ലാവ് മാവ് എല്ലാം ആയിട്ടുണ്ടുള്ളതാണ് കെ വെള്ളം വറ്റത്തൊന്നുമില്ല വെള്ളം വറ്റത്തില്ല ആ പോസ്റ്റൊക്കെ അടുത്തുണ്ട് നിങ്ങൾക്ക് വീട് പണിയാനായിട്ടാണോ ആണോ ആ അതിനു പറ്റിയ സ്ഥലമുണ്ട്

ആ അതെ ആയ് ആ ഓക്കെ ഓക്കെ ആ യൂണിവേഴ്സിറ്റിയുടെ അവിടെ അടുത്തു തന്നെ സ്ഥലമുണ്ട് കേട്ടോ ഇരുപത് സെൻ്റ് സ്ഥലം ഇരുപത്തഞ്ച് സെൻറ്റായിട്ട് പ്ലോട്ടായിട്ട് തിരിച്ച് നമുക്ക് മേടിക്കാം കേട്ടോ അതിനു വന്നു നോക്ക് വന്നു നോക്കി നമുക്ക് അതിൻ്റെ അനുസരിച്ച് മേടിക്കാം കുറച്ച് സ്ഥലം തിരിച്ചിട്ടിട്ടുണ്ടേ അതിനു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ വില നിങ്ങൾ വന്നു നോക്കാം വില സ്ഥലത്തിനൊക്കെ നല്ല ഡിമാൻറ്റൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ യു കെയിലൊക്കെയല്ലേ മോൾ അങ്ങനെ നമുക്ക് ആ ആ ശരി വന്നു നോ നമുക്ക് നോ എന്നാൽ വരുന്നത് മോളെന്നു വരും ആ പ്രസവത്തിനു പോയിരിക്കുകയായിരുന്നോ ആ ആണോ ആ എന്നാൽ ഒരു കാര്യം ചെയ്യ് മോൾ വന്നിട്ട് നിങ്ങൾ വന്നു നോക്ക് കേട്ടോ എന്നിട്ട് നമുക്ക് സ്ഥലത്തിൻ്റെ അനുസരിച്ചു നോക്കാം എന്തായാലും നമ്മൾ വലിയ വലിയൊരു ഫ്രണ്ട്സല്ലെ ആ ഓക്കെ ഓക്കെ വരാം വരാം വരാം ഓക്കെ ശരി ഓക്കെ